മൃഗങ്ങളെ സാധാരണമായി വളർത്തുന്നത് ആട് പശുവ് പോത്ത് എരുമ പട്ടി പട്ടീനെ വരെ വളർത്തും കാരണം അങ്ങനെയൊക്കെയാണ് ചെമ്മരിയാടുകളെ കോഴി അങ്ങനെയുള്ളതിനെ ഒക്കെ വളർത്തും ഓരോ മൃഗങ്ങൾ ഓരോ തരം മൃഗങ്ങളല്ല എല്ലാ മൃഗത്തിനെയും നമുക്ക് സമ്മിശ്രമായി വളർത്താം ഇപ്പോൾ വളരെ അധികം ഉപകാരപ്പെടുന്ന ഒരു രീതി ഒന്നിലധികം മൃഗങ്ങൾ സൗകര്യപ്രദമാണ് എന്ത് എന്ന് വെച്ചാൽ വളരെ അധികം നമുക്ക് ഒരു ഇപ്പോൾ ഇപ്പോൾ ഒരാൾ ഇതിനകത്ത് ഒരാൾ ഏർപ്പെടണം അയാൾക്ക് മനസ്സ് മനസ്സിലൊരു ഇഷ്ടം വേണം അല്ലാതെ ചുമ്മാതെ കയറിയങ്ങ് ഇഷ്ടപ്പെട്ട് നടത്താൻ ഒന്നും നമുക്ക് ഒന്നും നമുക്ക് ഒരു ഇഷ്ടം ഉണ്ടെങ്കിൽ മാത്രമേ ഇത് വിജയിക്കത്തുള്ളൂ വളരെ അധികം ലാഭകരമാണ് ഇപ്പോൾ വളർത്തി ഇപ്പം ആട് ആണെങ്കിൽ വളർത്തി വലുതാക്കി വിൽക്കാം പോത്ത് ഒക്കെ അതുപോലെയാണ് പശുക്കൾ ഇപ്പോൾ പാൽ വിറ്റ് നമുക്ക് കാശ് ആകും കുഞ്ഞുങ്ങളാകും മറ്റ് കാശ് ആകും അങ്ങനെ അതൊക്കെ നമുക്ക് വളരെ ഒരു ഒരു ഇത് എന്ന് പറയുമ്പോൾ വളരെ ലാഭമാണ് നഷ്ടം ഇതിനകത്ത് ഇല്ല തീറ്റ ചിലവും പോയിട്ട് ബാക്കി എങ്ങനെ കിഴിച്ചാലും ഒരു ലാഭം തന്നെയാണ്